ചേട്ടാ നമസ്ക്കാരം എന്താ സംഭവം ഇത് വഴി മൊത്തം ബ്ലോക്കണല്ലോ നമുക്ക് കറക്റ്റ് ടൈമിന് അവിടെ എത്താൻ പറ്റുമോ ഏ വഴിയാകെ ബ്ലോക്കാണെന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മളാ സമയത്ത് അവിടെ എത്തിയില്ലായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ മുടങ്ങുമല്ലോ ഏട്ടാ നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിൽക്കൂടെ പോവാൻ പറ്റുമോ എന്താ അവസ്ഥ ഒന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒന്നു വേഗം നമുക്ക് കൃത്യസമയത്ത് അവിടെ ഏത്താനുള്ള വല്ല സംവിധാനവും ചെയ്തുതരാൻ പറ്റുമോ